എല്ലാ ആളുകളും ഒത്തുചേർന്നുള്ള ഏറ്റവും വലിയ പരിപാടി ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം അവിടെ എല്ലാ കാര്യ പരിപാടികൾ മൂന്നു ദിവസങ്ങളിലായിട്ടാണ് പൂരം നടക്കുന്നത് ഒരു ദിവസം താലപ്പൊലി രണ്ടാം ദിവസം പുരം മൂന്നാം ദിവസം ഉച്ച വരെ പകൽപൂരവും ഉച്ചയ്ക്ക് ശേഷം ആരും ഉണ്ടാവില്ല അമ്പലപ്പറമ്പുകളിൽ ആദ്യത്തെ ദിവസം താലപ്പൊലിയിൽ ആനകൾ വരികയും ആനകൾ ആനകൾക്ക് പഴം നൽകുകയും ആനയൂട്ടും എല്ലാം ഉണ്ടായിരിക്കും രണ്ടാം ദിവസമാണ് മെയിനായിട്ട് പൂരം നടക്കുക അന്ന് രാവിലെ എല്ലാ ഭക്തജനങ്ങളും അമ്പലത്തിൽ ഒത്തുചേർന്ന് സംസാരിക്കുകയും അവർ തൊഴുകയും എല്ലാം ചെയ്യുമായിരുന്നു ക്യൂവിൽ നിന്ന് എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ ഭഗവതിയെക്കണ്ട ശേഷമേ പൂരത്തിലോട്ടോക്കെ ഇറങ്ങുകയുളളൂ അതേദിവസം തന്നെ പിന്നീട് തൊഴുതു വന്നശേഷം ഉച്ചയ്ക്ക് ഞങ്ങളുടെ ബന്ധുക്കളെയെല്ലാം വിളിച്ചു വരുത്തി നല്ല രീതിയ്ക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുകയും അവരോടൊപ്പം പൂരം കാണാൻ പൂരപ്പറമ്പിലോട്ടേക്ക് ചെല്ലുകയുമാണ് പതിവ് പൂരപ്പറമ്പിൽ ചെന്നശേഷം കുതിരക്കളികൾ കാളകളികൾ ആനപ്പൂരം എല്ലാം കാണുമായിരുന്നു ആറ് മണിക്കാണ് ആനപ്പൂരം ആരംഭിക്കുക ആനശിവേരിയിൽ കാലക്കുടമാറ്റം എല്ലാം അതിഗംഭീരമായിരിക്കും ഞങ്ങൾക്ക് മൊത്തം പതിനൊന്ന് ദേശങ്ങളിൽനിന്ന് ഏകദേശം ഒരു ദേശത്തുനിന്ന് മൂന്ന് ആനകളാണ് വരിക മൂന്ന് ആനകളും ഒരു കുതിരയും ആണ് പതിവ് പക്ഷേ ഞങ്ങളുടെ ദേശത്തിന് മൂന്നു ആനയും ഒരു കുതിരയും ഒരു തേരും കൂടെയുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ ഒരു തേര് പ്രത്യേകമായി ഇറക്കുകയും അത് വെച്ച് കളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു